ഞാൻ ഈ വോയ്സ്മെയിൽ അയയ്ക്കുന്നത് എനിക്ക് തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ശ്രദ്ധിക്കേണ്ട ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആധാറിൻ്റെ കാര്യമാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ഇരിക്കുവാണ് കാരണം എൻറെ ഇതിലുള്ള തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കാരണം സബ്സിഡി ഒന്നും പ്രൊസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് ആധാറിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട അത്യാവശ്യത്തിന് അത്യാവശ്യമാണ് അതൊന്ന് ചെയ്യണം എന്ന് ഉള്ളത് ഒന്ന് ഓർത്തിരിക്കണേ അല്ലെങ്കിൽ ഇനി ഇപ്പം ബുദ്ധിമുട്ടാവും